നക്ഷത്രം നമ്മൾ നിരീക്ഷിക്കുന്നത് നിരീക്ഷിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി സമയത്താണ് കൂടുതലും നക്ഷത്രം നിരീക്ഷിക്കാൻ തുടങ്ങുന്നത് നമുക്ക് നക്ഷത്രം നിരീക്ഷിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലാണ് അതാവുമ്പൊത്തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ഓരോന്ന് നമുക്ക് തെരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ആ സമയം രാത്രി സമയത്താണ് നക്ഷത്രങ്ങളേയും നമ്മൾ ചന്ദ്രനേയും നമ്മുടെ മൂണ് മൂണിനെയൊക്കേ നമുക്ക് കറക്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുംന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് എന്താ പറയാ നമ്മൾ നക്ഷത്രത്തെ രാത്രി സമയത്താണ് കൂടുതലും ഞാൻ നിരീക്ഷിക്കാറുള്ളതെന്ന് പറയുന്നത് പിന്നെന്താ പറയാ നക്ഷത്രം എന്താ പറയാ ഒരു ഒരു നല്ലൊരു ഇതാണെന്ന് പറയുന്നത് പിന്നെ രാത്രി സമയത്താണ് ഏറ്റോം കൂടുതൽ നക്ഷത്രത്തെ ആകാശത്ത് നോക്കീട്ടുണ്ടെങ്കിൽ രാത്രി സമയത്താണ് ഏറ്റോം കൂടുതൽ നക്ഷത്രത്തെ നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ടുതന്നെ നിരീക്ഷിക്കുന്ന നിരീക്ഷണ സമയമെന്ന് പറയുന്നത് രാത്രി സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് നക്ഷത്രത്തെ നല്ല വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് രാത്രി സമയങ്ങളിലൊക്കെ ആകുമ്പോഴത്തേനും കുറെ നക്ഷത്രങ്ങൾ നമ്മൾ ആകാശത്ത് കാണാൻ പറ്റും അതുകൊണ്ടുതന്നെ രാത്രി സമയത്താണ് ഞാൻ നക്ഷത്രത്തെ നിരീക്ഷിക്കാറുള്ളത്